ഞാൻ നിലവിൽ ബാങ്കിൽ നിന്ന് ലോൺ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പക്ഷേ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം ബാങ്കിലൊരു ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒട്ടനവധി പ്രൊസീജേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അവരൊരു ലോഡ് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഇതാക്കുകയും നമ്മളെ ഇട്ട് പറ്റുന്ന അത്രയും വലിപ്പിച്ച് ഇതാക്കി അങ്ങനെയൊക്കെയാണ് നമുക്ക് തരുന്നത് അതും ഓരോ ഇതിൻ്റെ ബേസ് ഒക്കെ വെച്ചിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുക ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുറേ നടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടിവരുന്നുണ്ട് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെയായിട്ടാണെങ്കിൽ തന്നെ ഒരു നൂറ് കൂട്ടം കാര്യങ്ങൾ ചെയ്താലാണ് നമുക്ക് ലോൺ കാര്യങ്ങൾ കിട്ടുന്നത് അപ്പോൾ അത് കിട്ടുന്നത് തന്നെ നോക്കികഴിഞ്ഞു കയിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നതും അതും ഓരോ കാറ്റഗറി ബേസിൽ അത് ഓരോ രീതിയിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതും അതിൻറ്റേതായ ഓരോ ഇതും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫേയ്സ് ചെയ്യേണ്ടി വരുന്നുണ്ട് അത് ഇതിൻ്റെ ഓരോ നടപടികളാണെങ്കിലും അത് തിരിച്ചടവിൻ്റെ കാര്യങ്ങൾ വരുന്ന സമയത്താണെങ്കിലും അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കുറേ പേര് ഫേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പെയ്മെൻറ്റ്സ് കാര്യങ്ങളുടെ റിട്ടേണ് കാര്യങ്ങ എന്തെങ്കിലും മുടങ്ങുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ കുറേയധികം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫേയ്സ് ചെയ്യും അങ്ങനത്തെ കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഓരോ സെക്ഷൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും ഒക്കെ ബേസിലും പിന്നെ അതിൻ്റെ ഓരോന്നും സാൻക്ഷൻ ആവണമെങ്കിലും അതൊക്കെ ഓരോ ഇതിൻ്റെ ബേസിലായിട്ടായിരിക്കും വരുന്നത് അതും ഓരോരോ ബാങ്കിനും ഓരോരോ പ്രൊസീജേസും കാര്യങ്ങളും പേപ്പർ വർക്ക് ആണെങ്കിലും അതൊക്കെ ഡിപെൻഡബിൾ ആയിട്ടായിരിക്കും വരിക